നിലവിലുള്ള ചെടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളിൽ കൂടുതലും അത് പിന്നെ ഉൽപാദിപ്പിക്കാൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതായത് വളങ്ങൾ ഒക്കെ ഇട്ടുകൊടുക്കും അതേപോലേ ചെ ചാണകം ചകിരിച്ചോറ് അങ്ങനെത്തെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചെടികൾ നല്ല അടിപൊളിയായിട്ട് വളരും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതായത് മണ്ണ് കുത്തി ഇളക്കി കൊടുക്കണം ഈ മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട കട്ട ആയിട്ട് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേര് അതായത് വേരിൽ വെള്ളം ഇറങ്ങില്ല മണ്ണ് കട്ട ആകും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയക്ക് അതിങ്ങനെ പിന്നെ കുത്തി കുത്തി കൊടുക്കണം കുത്തി കൊടുക്കുമ്പോൾ വേര് പൊട്ടാണ്ട് നോക്കണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചെറിയ ചെടികളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടുതലും ഇതാക്കാൻ പാടില്ല എന്ത് പിന്നെ വെള്ളം കുത്തി ഒഴിക്കാൻ പാടില്ല പിന്നെ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ വെള്ളം കുത്തി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേര് എല്ലാം പൊട്ടിപോകാൻ സാധ്യതയുണ്ട് വേര് ഇളകാൻ സാധ്യതയുണ്ട് അപ്പം ആ ചെടി പിന്നെ ചീയാൻ തുടങ്ങും അങ്ങനത്തേ പ്രശ്നങ്ങൾ ഒക്കെ വരും അപ്പം ആ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്ക് ചെടികൾ കൂടുതൽ ഉൽപാദിപ്പിക്കാൻ പറ്റും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വളങ്ങളൊക്കെ അതായത് രാസ വളങ്ങൾ അധികം പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത രാസ വളങ്ങൾ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ചെടികൾ നല്ലവണ്ണം നമുക്ക് ഉൽപാദി ഉൽപാദിപ്പിക്കാൻ സഹായിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടി നല്ലവണ്ണം നോക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് ചെടീന്റെ കൂടുതലും ഇത്